ഹലോ ഹലോ ഹലോ ജനേഷ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് അല്ലെ അവിടെ എന്തൊക്കെയാണ് ഓഫറുള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഈദിൻ്റെയാണോ നൂറു രൂപയ്ക്കാണോ

ഉണ്ടല്ലേ ആ ആ ഓക്കെ ഓക്കെ അവിടെ അവിടെ ഈ കോസ്മെറ്റിക്സ് അതിനൊക്കെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എൻ്റെ വീട് പനവല്ലി

ആ ഒരു ഏരിയ അല്ല അല്ല എന്തെങ്കിലും ഓഫറ് ഇപ്പോൾ പുറമെ ഒക്കെ നമ്മൾ എല്ലായിടത്തും ഓഫർ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിന് അതാണ് ഞാൻ വിളിച്ചു നോക്കിയത് ഇപ്പം നമുക്കവിടെ റേറ്റ് കുറച്ച് കിട്ടുകയാണെങ്കിൽ അവിടെ അല്ല ഈ അഞ്ച് കിലോ നൂറ്റമ്പത് പറയുമ്പോൾ അത് പുറത്തും ആ റേറ്റ് തന്നെ അല്ലേ വരുന്നത് പുറത്ത് ഇപ്പോൾ സോപ്പുപൊടിക്ക് ഒരു വില പറഞ്ഞില്ലേ അഞ്ച് കിലോയ്ക്ക് അത് ആ ആ ഓക്കെ ഓക്കെ അവിടെ ഇപ്പോൾ ഈ വാഷിങ്ങ് മെഷീനൊക്കെ എങ്ങനെയാണ് ഓഫർ കാര്യങ്ങളുണ്ടോ ഫ്രിഡ്ജോ ഹലോ കേട്ടില്ലായിരുന്നു ആ വാഷിങ്ങ് മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഫ്രീ കിട്ടുമല്ലേ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ ഞങ്ങൾ വരാം അങ്ങോട്ട് ആ ഓക്കെ ഓക്കെ